ആ അവിടെ ആ ഹാ ഹാ ആ നീയാണോ എടാ ഇങ്ങനെപോയാലോ ആണോ എടാ ടിക്കറ്റ് മ്മ് ആണോ അപ്പം ആണോ അത് എന്നാ പരിപാടിയാടാ എല്ലാവരും അതെന്നാടാ എല്ലാവരും കളിക്കുന്നത് പോലല്ലേ നമ്മളും കളിക്കുന്നത് അപ്പം അത് കൊടുക്കാമെന്ന് വെച്ചാൽ എങ്ങനെ നടക്കുന്ന കാര്യമാണോ അത് അത് എന്നാ പറ്റി നീ കൊടുക്കത്തില്ലേ നിന്നോട് പറഞ്ഞത് അല്ലായിരുന്നോ നമ്മൾ പൈസ തന്നതല്ലേ നീ എന്താണ് കൊടുക്കാതിരുന്നത്

ആ അത് കാര്യമാണ് പക്ഷേ എന്നാലും അവൻ എന്താണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ മാത്രമല്ലല്ലോ എല്ലാവരും കളിക്കുന്നത് അല്ലെ അവിടെ നിന്ന് പിന്നെ എന്താണ്

എടാ അതൊക്കെ കളിക്കാം കളിക്കുന്ന സമയത്താണത് പറഞ്ഞത് അല്ലാതെ ഇപ്പം ഇപ്പം അല്ലാതെ വരില്ല അല്ലാതെ ചുമ്മ പോകണോ ഇനി അവിടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇനി അവൻ പിന്നെ വേറെ വല്ലതും പറയുമോ നമ്മളോട് വല്ലതും ഇനി ആ അത് സെറ്റ് ആക്കാമെടാ അത് കുഴപ്പമില്ല അത് പക്ഷെ അവൻ്റെ കൂട്ട് ഇനി നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതാവോ ഇനി ഇനി അവൻ എന്തേലും പറഞ്ഞുകൊണ്ട് ഇരിക്കുമോ ഇനി പണ്ടത്തെ കാര്യം വല്ലതും എടുത്തിട്ട് ചുമ്മ

ആ അതൊക്കെ എന്തുവാടെ ചുമ്മാ എന്നതാണോ എങ്ങനെയാണ് കളി കാണണമെന്നും ഉണ്ട് പക്ഷേ ഇവനിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ചെന്നിട്ട് ഇനി വല്ലതും പറഞ്ഞിട്ട് ആ ഇനി ഏ

ആ അത് ഓ ഒ ആ എടാ എത്ര മണിക്കാണ് കളി എത്ര മണിക്കാണ് രണ്ടരയ്ക്കോ ആണോ ഓ ആളുണ്ടാകുമോ ഓ നമ്മൾ രണ്ടുപേരെ ഉള്ളോ അവന്മാർ വല്ലതും ഉണ്ടോ വണ്ടി ഞാനെടുക്കാം ആ വണ്ടി അത് കുഴപ്പമില്ല അവന്മാരെയും കൂടെ വണ്ടി എടുത്തോന്ന് പറഞ്ഞാൽ പോരെ അത് വിഷയമില്ല നമുക്ക് പോകാം ഇങ്ങനെ ഒരു ഇത് കിട ആ ഇങ്ങനെ ഒരു ഇതായത് കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇനി അവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ള വെറുതെ വിലയും പോകും ഏ ആണോ